മുൻകാലത്ത് കേട്ടുവരാത്തൊരു കാര്യമാണ് മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ രാവിലത്തെ ആ നടത്തം എന്നാലിപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യമാണ് മോർണിംഗ് വോക്ക് മോർണിംഗ് വാക്ക് വളരേ അധികം നമ്മളുടെ ശരീരത്തെ പ്രയത്നിക്കുന്ന ഒന്നാണ് അതായത് സ്കിന്നായിക്കോട്ടെ ബോഡി വെയിറ്റായിക്കോട്ടെ അതൊക്കെ നമുക്കനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാതെ വേറൊരാളൊപ്പരം നടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു എൻജോയ്മെൻറ് കണ്ടെത്തുന്നതും നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനായിട്ട് മാറുന്നൊരു കാര്യമാണ് മോർണിംഗ് വോക് മോർണിംഗ് വാക്ക് സ്കിന്നിന് വളരെയധികം നല്ല രീതിയിൽ അച്ചീവ്മെൻറ് കണ്ടെത്തുന്ന ഒന്നാണ് സ്കിന്ന് നമുക്ക് ഏതൊരു ടൈപ്പാണെന്ന് മനസിലാക്കി അതിനനുസരിച്ച് വെള്ളമൊക്കെ കുടിക്കുന്ന പോലെത്തന്നെ അതിനനുസരിച്ച് നമ്മൾ വോക്ക് ചെയ്തുകഴിഞ്ഞാൽ വളരെയധികം മാറ്റമുണ്ടാവുന്ന ഒന്നാണ് മോർണിംഗ് വോക്ക് ആദ്യമൊക്കെ എംപ്ലോയ്മെൻറ് ആയ അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരുന്നീ മോർണിംഗ് വോക്ക് എന്നൊരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാലിപ്പോൾ നമ്മൾ കാണുന്ന വീട്ടുജോലിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ മോർണിംഗ് വോക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ് ടു ട്വൽവ് അതായത് പന്ത്രണ്ട് വയസിന് മുകളിലുള്ള കുട്ടികളാണ് കൂടുതലായി മോർണിംഗ് വാക്ക് ചെയ്യാറുള്ളത് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടി കോൺഷ്യസായിട്ടുള്ള ജനറേഷനാണ് മുമ്പുള്ള പോലെയുള്ള ചിന്താഗതിയല്ല ഈ ഒരു കാലത്ത് മുതിർന്ന് വന്നത് അതായത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ ശരീരത്തിനോക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ജനറേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോർണിംഗ് വോക്ക് അതുപോലെത്തന്നെ ജിമ്മ് എല്ലാ കാര്യങ്ങളും നമുക്ക് ശരീരത്തിന് ഫിസിക്കലായിട്ട് വളരെ അധികം അനുഭൂതി നൽകുന്ന റിസൾട്ട് നൽകുന്ന ഒന്നാണ് അത് നമുക്ക് ചെയ്തുകഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ആരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇനിയിപ്പം സിക്സ് പായ്ക്ക് വെയ്ക്കാനാണെങ്കിൽ എല്ലാവരും ജിമ്മിൽ പോവണു അതുപോലത്തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നടക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് മോർണിംഗ് വോക്ക് മാത്രമല്ല ഈവനിംഗ് വോക്ക് നൈറ്റ് വോക്ക് ഒക്കെ പറ്റും പക്ഷേ ഉച്ചയ്ക്ക് നടക്കുന്നത് ആരും നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം ഉച്ചയ്ക്ക് നടക്കുന്നത് അത്ര നല്ല കാര്യമല്ല പക്ഷേ മോർണിംഗ് വോക്കാണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെത്തന്നെ ഈവെനിംഗ് വാക്ക് നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ നമ്മൾ ഉത്സാഹിച്ച് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചുള്ള റിസൾട്ട് അച്ചീവ്മെൻസ് നമ്മുടെ ഫിസിക്കലായിട്ട് ബോഡിക്ക് ഉണ്ടാവുന്നതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെത്തന്നെ ബോഡിയും മെയിൻറ്റെയിൻസൊക്കെ ചെയ്യും നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റും കാണാൻ പറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കുന്നതും വളരേ നല്ല കാര്യമാണ്